ഹലോ ആ ഓക്കെ പറഞ്ഞോളൂ മേഡം മേഡം എങ്ങനെയാണ് ബാൾക്കായിട്ട് എടുക്കാനാണോ അതോ കുറച്ചായിട്ടാണോ ആഴ്ചേലാഴ്ച്ചേൽ അതിപ്പോൾ നിങ്ങൾക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി മേഡം ആ ഓക്കേ അപ്പം മേഡം ഏതൊക്കെ ഇതാണ് വേണ്ടത് ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസാണ് മേഡത്തിന് വേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ മേഡത്തിന് ആഴ്ചേൽ ആഴ്ചേലാണോ വേണ്ടത് ആ ഓക്കെ ഓക്കെ അങ്ങനാണെങ്കിൽ മേഡത്തിന് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ഞങ്ങളങ്ങോട്ട് അയച്ച് തരാം അത് മേഡം അഡീഷനല് ചെയ്യേണ്ടിവരും കാരണം നമുക്കിതിപ്പോൾ ഇതീന്ന് വലിയ ഇതൊന്നും കിട്ടാനില്ലല്ലോ കാരണം നമുക്ക് ഈ വെജിറ്റബ്ൾസ് ഇങ്ങനെ ഹോൾസെയില് റേറ്റിന് കൊടുക്കുമ്പം നമുക്കിതീന്ന് വലിയ അതായതൊന്നും കിട്ടാനില്ല അപ്പോൾ ഈ ഇല്ല എത്ര മേഡ ഇത് എവിടെയാണ് സ്ഥലമെവിടെയാണ് ആ അപ്പം നമ്മളിത് പുൽപ്പള്ളീന്ന് ഇത് അവിടെ വരേ എത്തിക്കണ്ടേ അപ്പോൾ എങ്ങനെ പോയാലും അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്ററിന് അടുത്തുണ്ട് അപ്പോൾ അത്രേം ദൂരം നമ്മളിതും കൊണ്ട് വരുമ്പോൾ നമുക്കത് നഷ്ടാവാണ് അപ്പോൾ അത്രേം പൈസേടെ എണ്ണ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ അപ്പോൾ നമുക്കിവിടെ മെയ്നായിട്ട് ഇപ്പോൾ എന്താ പറയാ കൂടുതലാൾക്കാരും ഇവിടെവന്ന് എടുത്തിട്ട് പോവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യലില്ല ആ എത്തിക്കാം അപ്പോൾ അതിൻറ്റെ പേയ്മെൻറ്റ് മേഡം ചെയ്താൽ മതി അങ്ങനാണെങ്കിൽ ഞങ്ങളെത്തിച്ച് തരാം ഞങ്ങളെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് തരാം

ഓക്കെ അപ്പോൾ മേഡം എങ്ങനെയാന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് എത്ര കിലോ വെച്ച് വേണ്ടിവരും ആ ഓക്കേ ആ ആ മാനന്തവാടി നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അവർ ഇവിടെവന്ന് കളകട് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരുടടുത്ത് കയറ്റിവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർക്കെന്തെങ്കിലും ചെറിയ പേയ്മെൻറ്റ് ചെയ്യേണ്ടിവരും ആ ഓക്കെ എന്തായാലും ഞാൻ നോക്കീട്ട് മേഡത്തിനോട് പറയാം ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ